എൻ്റെ ചെറുപ്പകാലത്ത്ന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ സമയമാണ് ആ സമയത്താണ് കപ്പ ഉണക്കുക ക നമ്മൾ കാച്ചിലൊക്കെ ഇഞ്ചിയും മഞ്ഞളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറിച്ച് ഉണക്കി എല്ലാം വിൽക്കാൻ എടുക്കാനായിട്ട് എല്ലാം വെക്കുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ പോയി മെ ജൂൺ ജൂലൈ ഒക്കെ ആയി കഴിയുമ്പോഴത്തേലും പിന്നെ അത് മഴ മാസമാണ് അതൊരു നാലഞ്ചു മാസമെന്നു പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയം എന്നു പറഞ്ഞാൽ എൻ്റമ്മോ എന്തോരം മഴയാന്നു പറഞ്ഞാൽ ഭയങ്കര മഴയാണ് അങ്ങനെ ഇടിയും മിന്നലും അങ്ങനെയുള്ള കാര്യങ്ങളോന്നുമില്ല അത് ഒക്ടോബർ നവംബറിലാണ് ഇടിയും മഴ കാര്യങ്ങൾ എല്ലാമായിട്ട് വരുന്നത് അങ്ങനെ കാലാവസ്ഥ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട് കൃഷിക്കാർക്കും നല്ലതായിരുന്നു വീട് ജോലിചെയ്യുന്നോർക്കെല്ലാവർക്കും നല്ലതായിരുന്നു ഇപ്പോഴെന്നു പറഞ്ഞാൽ അന്ന് രണ്ട് കൃഷിക്കണ്ടത്തിൽ നടത്തുന്ന രണ്ട് കൃഷി നടത്തിക്കൊണ്ടിരിന്നിടത്ത് ഇന്നിപ്പോൾ ആദ്യത്തെ ഒരു കൃഷിയെപ്പറ്റി ചിന്തിക്കാനെ പോലും പറ്റാത്ത ഒരു സാഹചര്യം രണ്ടാമത് ഒക്ടോബർ മാസത്തിൽ ഒക്കെ ഒരു കൃഷിയാണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ ഇല്ല വെള്ളപ്പൊക്കം എപ്പോൾ വരുന്നെന്നും വെളളം എപ്പോൾ ഇല്ലാതാകുന്നെന്നോ പറയാൻ പറ്റില്ലാത്തത് പിന്നെ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നടത്തുന്ന നവംബർ ഡിസംബറിൽ നടത്തുന്ന കൃഷിയാണ് നമ്മൾ ഏപ്രിൽ മെയ് ഈസ്റ്ററിൻ്റെ ഒക്കെ സമയമാകുമ്പോഴത്തേന് അതൊക്കെ കൊയ്യുന്നത് കൊയ്തു വരുമ്പോഴത്തേന് ആദ്യം കൃഷി ഇറക്കിയോർക്ക് നല്ല സുഖമാണ് അവർക്ക് വിളവ് വരും മെഷീൻ വരും അവർ കൊയ്ത്തിറക്കും രണ്ടാമത് വിതച്ച് എന്താന്നു വെച്ചാൽ ചില സ്ഥലത്ത് വെള്ളം കെട്ടി കിടക്കും അതിറക്കിയൊക്കെ വിട്ട് അവരവിടെ കൊയ്ത് ഇതാ കൊയ്യാറായി വരുമ്പോഴത്തേലും ചിലപ്പോൾ മിക്കവാറും ഒരൊറ്റ മഴയങ്ങോട്ട് പെയ്യും ആ മഴയോടുകൂടി ആ നെല്ല് മുഴുവൻ വീണുപോകും പിന്നെ മെഷീനിൽ അതൊന്ന് കൊയ്തെടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലായിപ്പോകും ഇപ്പോഴേന്നു പറഞ്ഞാൽ കർഷകർ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ അവർ ലോൺ എടുത്തും അയൽക്കൂട്ടൻമാരും അങ്ങനെയെല്ലാം കൂടിപ്പെറുക്കി കൃഷി നടത്തി വരുമ്പോഴത്തേന് അവർക്ക് ഒരു നൂറ് രൂപ പോലും കൈയ്യിലോട്ട് കിട്ടാതെ കടബാധ്യത മാത്രം ആകുന്ന ഒരു സാഹചര്യ ഇപ്പോൾ ഉള്ളത് കപ്പയിട്ടാൽ എന്ന് പറഞ്ഞാൽ എലിയും കൊണ്ടുപോകും ഈ മറ്റേ നാട് ഇഞ്ചി മഞ്ഞൾ സാധാനങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞാൽ നമ്മളുദ്ദേശിക്കുന്ന ഒരു വിലയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തുമില്ല നമ്മളുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും നടക്കുന്നൊന്നുമില്ല വാഴ വെച്ചാലാണേലും അത് എന്ത് കൃഷിപ്പണി നടത്തിക്കഴിഞ്ഞാൽ മഴ വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൻപ്രകാരം നമ്മളൊരു കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ നമ്മളാ മഴയെ പ്രതീക്ഷിക്കണ്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ജനുവരി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസംബർ വരെ ചിലപ്പോൾ മിക്കവാറും ഇടിയും മഴയും മിന്നലും എന്തോരപകടങ്ങളും കാര്യങ്ങളുമാണ് ലോകത്ത് ഇന്നുവരെ കേൾക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു തരത്തിൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ മഴ ആണേൽ ഇടിയും മിന്നലും കാറ്റും വെള്ളപ്പൊക്കം എന്നൊക്കെപ്പറയുന്ന എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ തുലാമഴക്ക് വലിയതായിട്ടോരു വെള്ളപ്പൊക്കമൊക്കെ വരും കണ്ടമൊക്കെ നിറഞ്ഞൊക്കെ വരുന്നിടത്തിപ്പം ഒരു വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വെള്ളപ്പൊക്കമാണ് ഞങ്ങടെയൊക്കെ വീട്ടിലൊക്കെ മുറ്റത്തൊക്കെ കൊണ്ട് നാട്ടിലുള്ള മനുഷ്യരുടെ മുഴുവൻ വണ്ടിയും കാര്യങ്ങളും എല്ലാം കൊണ്ടയിട്ടേക്കുവാണ് അതുപോലെ വെള്ളമാണ് നാലഞ്ചുദിവസത്തേന് ഒന്നും അവരുടെ വീടുകളിലോട്ട് ഇറങ്ങി പോകാൻ പോലും പറ്റുകേല വഴിയിൽ ഒരാൾ ഒന്നരാൾ രണ്ടാളോളം വെള്ളം കയറി കിടക്കുവാണ് ഓ അവിടെയൊരു ഒരു മലബാറിൽ മലബാറിലോട്ട് ഭാഗത്തോട്ട് വയനാട് ഭാഗത്തോട്ടൊക്കെ പിന്നെ എന്നാ എന്നു വെച്ചാൽ വലിയ വെള്ളത്തിന്റെ ഇതില്ലാത്തതുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെടുന്നു ഞങ്ങൾ വഴിമന ആർപ്പൂക്കര ഭാഗത്ത് താമസിക്കുന്നവർ എന്നു പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളോളം അതിങ്ങൾക്ക് മുറ്റത്തിറങ്ങാനോ ഒരു നല്ല ഒരുതുള്ളി വെള്ളം കുടിക്കാനോ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് നമുക്കാകട്ടെ ഒരു കൃഷിയോ മറ്റ് കാര്യങ്ങളോ എന്നാ ചെയ്യുന്നത് ജീവിക്കുന്നത് എങ്ങനെ ഒരു പെര ആണേലും ഒന്ന് പണിത് പെറുക്കി ഉണ്ടാക്കി കൊണ്ട് വന്നുകഴിഞ്ഞാൽ ആറു മാസം പോലും അവന് മനസമാധാനമായിട്ട് അതിനകത്ത് ജീവിക്കാൻ പറ്റില്ല അന്നേരത്തേന് വെള്ളം കയറി അവൻ പണിതതും പണിതാത്തതും ഇടിഞ്ഞും പൊളിഞ്ഞും പോയി അതിനകത്ത് കയറാൻ പറ്റാതെ വല്ല പാമ്പും കയറി ആകെ മൊത്തം നാശകോശമാക്കിയാണ് ജീവിക്കുന്നത് ഇത് ചക്രവാതച്ചുഴി ആണെന്നും അങ്ങനെയാണെന്നും ഓരോരോ കാലാവസ്ഥയ്ക്കു ഓരോ പേരുകളും കൊടുത്തിട്ടുണ്ട് ആകെ ഒരു സാഹചര്യത്തിലല്ലേ ഇപ്പോൾ നമ്മൾ ജീവിച്ചു പോന്നത് വെള്ളപ്പൊക്കം വന്നുകഴിഞ്ഞാൽ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ വെള്ളപ്പൊക്കത്തിനൊക്കെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ആളെ ഇറക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഫയർ ഫോഴ്സ്കാർ വന്നിട്ട് അവർ വണ്ടിയും കൊണ്ട് വന്ന് ആൾക്കാരെ കയറ്റി ഇറക്കി കൊണ്ടുപോകുന്നു ദുരിതാശ്വാസ കാമ്പി ജീവിക്കുന്നു വല്ലാത്ത ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് പിന്നെ നമ്മളിപ്പം ഓ ഒരു ഒരു ഒരു ഒരു തരത്തിലും നമുക്കങ്ങോട്ട് ജീവിച്ച് കയറി പോകാൻ മേലാത്ത പോലെത്തെ ഉളള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാരും ഒത്തിരി നമ്മളിതീ ടൌണിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല കാരണം അവർക്ക് വെള്ളത്തിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല അതേ പോയിട്ട് ഇച്ചിരി താഴ്ന്ന പ്രദേശങ്ങളിൽ താഴ്ന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർ മുഴുവൻ വെള്ളം കയറിയിട്ട് അവർക്ക് ജീ ഒരുതരത്തിലും ഒരു കാ യാ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് പറയാം വെള്ളം നാലു ദിവസം അഞ്ചു ദിവസത്തേക്ക് ഞങ്ങൾക്കാണെങ്കിൽ കറൻറ് ഒന്നുമില്ല അത് എല്ലാം ഓഫാക്കി ട്രാൻസ്ഫോർമർ എല്ലാം വെള്ളത്തിലാണ് അങ്ങനെ എല്ലാം കൊണ്ടും ആകെ മൊത്തം വല്ലാത്ത ഒരു ദുരിതമായ ഒരു സാഹചര്യത്തിലാണ് ജീവിച്ച് പോകുന്നത് ഈ കാലാവസ്ഥ ഇങ്ങനെ ഇതുപോലെയൊക്കെ തുടർന്നൊക്കെ പോയി കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒരുതരത്തിലും ജീവിക്കാനായിട്ട് പറ്റാൻ മേലാത്ത ഒരു സാഹചര്യം വരും എന്നാൽ ചില സമയത്ത് മഴയും നമുക്ക് മഴ വേണ്ടാന്നു ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും പെരുമഴ പെയ്യുന്നത് ചിലപ്പം വെയിൽ തെളിയുന്നെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൂര്യാഘാതമെന്ന് പറയും ഇറങ്ങിക്കഴിഞ്ഞാൽ അവനവിടെ വീണ് ചാകുക എന്നുള്ളതല്ലെ ഉള്ളു അതുപോലത്തെ വെയിൽ വെയിലുമാണ് പണ്ടൊക്കെ ഒറീസായിലും അവിടെയുള്ള കാലത്തൊക്കെ ആയിരുന്നു ഇതുപോലെ വെയിലും കാര്യങ്ങളുമൊക്കെ കേട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് ഇപ്പോൾ ജില്ല കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ വെയിലെന്ന് പറഞ്ഞാൽ ഒരു ഒരു അത്യാവശ്യം ഒരു ഒരെല്ലാ ഒരു മൂന്ന് കുട ചൂടിയാപ്പോലും ആ വെയിൽ താങ്ങാൻ പറ്റത്തില്ലാത്ത പോലത്തെ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് ഒരു വിശ്വസി വിശ്വസിച്ച് ഇപ്പോൾ ഈ നടത്തുന്ന ഒരു വെള്ളം പോലും കുടിക്കാൻ മേലാത്തൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യരെല്ലാരും എല്ലാ തരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ജീവിക്കാൻ മേലാത്ത ഒരിതിലാണ് വരുന്നത് ഇപ്പം ഒരു മഴയെല്ലാമിവിടെ കഴിഞ്ഞ് ഇത് അതിന് ഒരു പിന്നെ എന്നാന്ന് ഒരു പതിനഞ്ച് ദിവസം മഴ മാറി നിൽക്കും എന്ന് കരുതുമ്പോളത്തേനും രണ്ട് ദിവസം നല്ല വെയിലായിരിക്കും ഭയങ്കരമായിട്ട് വെയിലങ്ങോട്ട് തെളിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് വെയിൽ കൊണ്ടോ എന്ന രീതിയിലുള്ള ഈ രണ്ടു ദിവസത്തെ വെയിലെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നാലു മണിയാകുന്നെന്ന് തുടങ്ങും അന്നൊരു ഇടിയും മഴയും ഇതൊന്നും ഈ നമ്മളിന്നുവരെ നമ്മളെ ജീവിതത്തിൽ ഇതുവരെ കേൾക്കുവോ കാണുവോ അനുഭവിക്കുകയോ ചെയ്യാത്ത ഒരു സംഭവമായി എന്നാൽ പറയാനായിട്ട് ഈ കാലാവസ്ഥയ്ക്ക് ഓരോരോ വ്യതി മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് വളരെ എൻ്റെ ചെറുപ്പം മുതലെ കാലം മുതലെ നമ്മളനുഭവിച്ചത് കൊണ്ട് ഇപ്പം ഈ ഒരു സാഹചര്യം നമക്കൊരുതരത്തിലും അങ്ങോട്ട് ഒരുതരത്തിലും നമുക്ക് ജീവിക്കാൻ മേലാത്ത ഒരു സാഹചര്യത്തിലോട്ട് നമ്മളെ കൊണ്ടുപോയി നാ നിർത്തുന്നത്